അതെ ആരാണ്

ആ എന്റെ പേര് ബിന്ദു എന്നാണെ ആരാ വിളിക്കുന്നത് മനസിലായില്ല ആ ഓക്കെ

ഓക്കെ ഓക്കെ മീനു നമ്മുടെ ക്ലീനിക്കിലേക്ക് നേരിട്ട് വന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരാം ആ ഇപ്പം പേടിക്കാനൊന്നും ഉള്ള ഒരു കാര്യം അല്ല കേട്ടോ താങ്കൾ ഇപ്പോൾ ഒരു ഡിപ്രെഷൻ സ്റ്റേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം ഈ കോളേജ് സ്റ്റുഡൻസിന് ഒക്കെ ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളിൽ ഇപ്പം കണ്ട് വരുന്ന ഒരു കാര്യമാണിത് അത് ചെറിയ ചെറിയ കൗൺസിലിങ്ങിലൂടെ ഒക്കെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇപ്പം തരാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് ഉറപ്പുണ്ട് ഞങ്ങളുടെ ക്ലീനിക്കിലേക്ക് ഡയറക്റ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കൗൺസിലിങ് സെക്ഷൻസ്സ് തരും ഒരു മൂന്ന് കൗൺസിലിങ് സെക്ഷൻസ് വെക്കും അതില് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഫീൾ ചെയ്യും അതിൽ ഫീല് ചെയ്തിട്ടില്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൊസീജ്യേഴ്സ് ഒരുപാടുണ്ട് അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് മെഡിസിൻ എടുക്കണം മെഡിസിൻ എടുത്തെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ മെഡിസിൻലേക്കൊക്കെ പോവും അങ്ങനെയാണ് ഇവിടുത്തെ പ്രോസിജ്യേഴ്സ്സ് എന്തായാലും മീനു ക്ലിനിക്കിലേക്ക് വന്നോളൂ നാളെ ഞാനുണ്ടായിരിക്കും നാളെ ഉച്ചക്ക് ശേഷം ഞാനുണ്ടായിരിക്കും ക്ലിനിക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്സ് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ ഉം